ഞങ്ങളുടെ ഈ നമ്മുടെ ജില്ലയിൽ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ അകത്തുവെച്ച് നല്ലൊരു ജലാശയം ഒരു ഉണ്ട് വിനോദസഞ്ചാരികൾക്ക് കൂടുതലായിട്ട് ആളുകൾ അവിടെ വരുന്നുണ്ട് അവിടെ നല്ല മത്സ്യബന്ധനത്തിനുള്ള സാധ്യതകളും ഉണ്ട് വിനോദസഞ്ചാരികൾ അവിടെ നല്ല നല്ലതുപോലെ അത് പരിപാലിക്കപ്പെടുന്നുണ്ട് നല്ല ആൾക്കാർ ഇത് നമ്മുടെ മേഖലയിലുള്ള ആൾക്കാർ എല്ലാം അത് നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പരിഗണിച്ച് അവിടെ ആൾക്കാർ ബോട്ടിങ്ങും മറ്റ് മത്സ്യബന്ധന ത്തിനുള്ള സൗകര്യങ്ങളും ആൾക്കാർക്ക് വിനോദ വിനോദസഞ്ചാരികൾ വന്ന് അവിടെ പിന്നെ ക്യാമ്പ് ചെയ്ത് അവിടെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും നല്ല ഹോട്ടലുകളും നല്ല റിസോർട്ടുകളും ഒക്കെ ഉണ്ട് ആ മേഖലയിൽ വെള്ളപ്പൊക്കം അങ്ങനെ ഒന്നും ഇതായിട്ട് വരുന്നില്ല ഗവൺമെൻറിന്റെ തന്നെ ഭാഗം ഗവൺമെൻറിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് നല്ലതുപോലെ ക്രമീകരിച്ച് നല്ല പദ്ധ നല്ലതുപോലെ വൃത്തിയായും മികച്ച ഒരു കേന്ദ്രമായിട്ടത് മാറ്റി ഏട് മാറ്റിയിട്ട് മാറുന്നുണ്ട് പിന്നെ അവിടെ വിദേശശ് വിദേ വിദേശത്ത് കാര്യങ്ങൾ കുറച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഉള്ളവരൊക്കെ അവിടെ നല്ല ബോട്ടിങ്ങിനും പിന്നെ അവിടെ വന്ന് ബോട്ട് വാ എടുത്തിട്ട് കൂടുതൽ മണിക്കൂറുകൾ അതിനകത്ത് തുഴഞ്ഞും ഒക്കെ കാണുന്നുണ്ട് മൺറോ തുരുത്ത് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് കൊല്ലം ജില്ലയിലാണ് അവിടെ ഞങ്ങൾ ഒക്കെ അവിടെ പോയി പ പല പരിപാടികളും പല ദിവസങ്ങളിലും അവിടെ പോയി ഈ ജലാശയത്തിൽ കുറച്ച് ദിവസം ഈ ചെറിയ ചെറിയ ബോട്ടിലും വള്ളത്തിലും ഒക്കെ സഞ്ചരിക്കുവേം അത് പിന്നെ കാണുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ല ഫാമിലി കളുമായിട്ട് നല്ല നല്ല തുട്ട് നല്ല എഞ്ചോയ്മെൻറ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് നല്ല പച്ച ഇതാണ് വൃത്തിയാണ് നല്ലതാണ് അവിടെ കം ചം ഈ കണ്ടൽക്കാടുകളാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത് അപ്പം ആ കണ്ടൽക്കാടുകൾ ഒക്കെ നല്ലതുപോലെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് അതിനിടയിൽക്കൂടെ ഒക്കെ നല്ലതുപോലെ ഇങ്ങനെ വള്ളത്തിൽ പോകാനും അതിന്റെ വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞ് ആൾക്കാറ് നമ്മളെ കൊണ്ടുപോയി ആ ഭാഗങ്ങളിൽ എല്ലാം അവർ കാണിക്കും പിന്നെ നല്ല മീൻപിടുത്തം മത്സ്യബന്ധനം ഉണ്ട് അവിടെ കരിമീൻ്റെ നല്ല മത്സ്യ സമ്പത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പം ജില്ലയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് ആ ഒരു സ്ഥലം നല്ലതുപോലെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് ഉപയോഗിക്കുന്നുമുണ്ട് നല്ല ആൾക്കാർ അതോടൊപ്പം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആ മേഖല ഇപ്പം മാറിയിട്ടുണ്ട് പിന്നെ വരൾച്ച പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ആ വെള്ളം ഒന്നും വലുതായിട്ട് വരുന്നില്ല വെള്ളം വറ്റി പോവുന്നില്ല അവിടെ രണ്ട് മൂന്ന് കായലുകളുടെ ഒരു സംഗമ സ്ഥലമാണ് രണ്ട് കായലുകളുടെ ഒരു സംഗമമാണ് അപ്പം അതുകൊണ്ട് ആ സംഗമ ആ കേന്ദ്രം നല്ലതുപോലെ അത് വെള്ളം വറ്റാതെയും ആ ചമ്പൽ കാടുകൾ സംരക്ഷിച്ചും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ എല്ലാം സംരക്ഷിച്ച് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ആ മേഖലയിൽ നല്ല നല്ല ഇതൊരു നല്ലൊരു ജലാശയമായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത് ആൾക്കാർ വന്ന് പോകുന്നവരെല്ലാം വീണ്ടും വീണ്ടും വരാനൊക്കെ അതിനകത്ത് താല്പര്യമുണ്ട് പിന്നെ വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാവുന്നില്ല അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നില്ല ഒരേപോലെ ഇങ്ങനെ നിൽക്കും വെള്ളപ്പൊക്കം കൂടുതലും വലിയ പിന്നെ മഴക്കാലം ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് സം ബ് കുറച്ച് വെള്ളം ഒക്കെ ഉയർന്നു വരുന്നെങ്കിലും അത് മറ്റ് നാശമൊന്നും മറ്റ് മറ്റ് നാശമൊന്നും വരുന്നില്ല മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അപ്പം എല്ലാം നല്ല രീതിയിലത് പോകുന്നുണ്ട് നല്ല രീതിയിലത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടും നല്ലൊരു സമ്പത്താണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് ടൂറിസ്റ്റ് ആൾക്കാർക്ക് വരാനും പോവാനും കാണാനും ഒക്കെ ഒരു നല്ല ഇതാണ് ബോട്ടിങ്ങ് ഉണ്ട് മത്സ്യബന്ധനം ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയാണ്